ഇന്ത്യയിലെ നർത്തകരെ ബോളിവുഡ് പല പല രീതിയിലും സ്വാധീനിക്കുന്നുണ്ട് അതില് പാട്ടാണ് ഏറ്റവും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം പല പാട്ടുകളും ഇപ്പോഴും അത് നമ്മളതിൻ്റെ താളം കേള്ക്കുമ്പോള് തന്നെ നൃത്തം ചവിട്ടുക പതിവായിട്ടിരിക്കുകയാണ് അങ്ങനെയുള്ള കുറെ പാട്ടുകളുണ്ട് അതിലൊരു പാട്ടാണ് തകില് പുകില് മേളം അതേ പോലെ തന്നെ പല പാട്ടുകൾ ആവേശം എന്ന സിനിമയിലെ ഗാനങ്ങളാണെങ്കിലും അങ്ങനെ പല പാട്ടുകളും എല്ലാ പലവരെയും സ്വാധീനിക്കുന്ന ഒന്നാണ്